തീർച്ചയായിട്ടും എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവമുണ്ടായിരുന്നു ഞാൻ ജോലിചെയ്യുന്ന ഒരു പൊതുമേഖല സ്ഥാപനത്തിലാണ് അവിടെ ഒരു ഒരാൾ ഇതേപോലെ വാഹനം വാങ്ങാൻ വന്നു എൻ്റെ പക്കൽ വന്നു അദ്ദേഹത്തിന് ഒരേ ഒരു കാര്യം നിർബന്ധമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ വാഹനവുമായി ബന്ധപ്പെട്ട ഉള്ള കിട്ടുന്ന ഡോക്യുമെൻ്റ്സ് എല്ലാം മലയാളത്തിൽ വേണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മലയാളമല്ലാതെ വേറൊരു ഭാഷയും അറിയില്ല അതിൻ്റെപുറമേ അദ്ദേഹം മലയാളം ഭാഷയെ വല്ലാതെ സ്നേഹിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടില് വരുന്ന പത്രം അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം മലയാളം അല്ലാതെ ആ സംസാരിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു അല്ലാതെ മലയാളവുമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്ന കൂടുതലായിട്ടും എല്ലാ കാര്യത്തിലും ഇടപെടുത്തുന്നത് അപ്പോൾ നമുക്ക് ഒരു വാഹനം വേണം കൊടുക്കാനുള്ള വഴി വഴി തെളിഞ്ഞതുകൊണ്ട് നമ്മളത് ശ്രമിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതെന്താന്ന് വെച്ചാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കാരണം ഭാരതം മുഴുവൻ ഉള്ള ഒരു സ്ഥാപനമാണ് അതൊരു നോർമൽ ഇതിൽ പറയുമ്പോൾ അത് എല്ലാം ഇംഗ്ലീഷിൽ ആണ് വരുക അതിൻ്റെ ഡോക്യുമെൻ്റിങ്ങ് എല്ലാം ഡോക്യുമെൻ്റേഷൻ എല്ലാം എപ്പോഴും ഇംഗ്ലീഷിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിനോട് അത് പറഞ്ഞു കുറേ മനസ്സിലാക്കാൻ നോക്കി പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധം നമുക്ക് വഴങ്ങേണ്ടി വന്നു പിന്നെ അത് ഞങ്ങൾ ഞങ്ങളെ കമ്പനിയിൽ സംസാരിച്ചു അവർ പറഞ്ഞു അതിനുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവരദ്ദേഹം കമ്പനിയിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തന്നു നമുക്കത് അദ്ദേഹത്തിൻ്റെ തന്നെ അതെ ആ വാഹനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും മലയാളത്തിലുള്ള ബിൽ ബില്ലുകൾ കൊടുക്കാൻ സാധിച്ചു അതിൽ അദ്ദേഹം ഭയങ്കര സന്തോഷമായി അദ്ദേഹം വല്ലാതെ സന്തോഷപ്പെട്ടു അതിൽ വല്ലാതെ നന്ദി ഞങ്ങളോട് അറിയിക്കുകയും ചെയ്തു